ആ ഹലോ ചേട്ടാ ആ ഞാനേയ് ഒരു വീട് പണിയുന്നുണ്ട് അപ്പോൾ എനിക്കൊരു നാലുകെട്ട് മോഡലിലാണ് ഒരു വീട് ആവിശ്യം അപ്പൊ അതിന് അന്വേഷിച്ചപ്പോൾ ചേട്ടനാണ് ഏറ്റവും ബെസ്റ്റെന്നാണ് പറഞ്ഞത് അപ്പം അതിന് വേണ്ടിയിട്ട് ആണ് വിളിച്ചത് നമ്മളിത് വെട്ടുകല്ലൊക്കെ വച്ചിട്ട് ചെയ്യാനുള്ള ഇതിലാണ് ഉദ്ദേശിക്കണത് എങ്ങനെയാണ് പറ്റുമോ ആ എനിക്ക് ആ എനിക്ക് വേണ്ടത് നാലുകെട്ടിലുള്ളൊരു വീടാണ് തേപ്പ് മുഴുവനായിട്ട് വേണ്ട കല്ലങ്ങനെ കാണുന്ന രീതിയിലുള്ള പോലെയാണ് എനിക്കാവിശ്യം അപ്പം മുഴുവനായിട്ട് അങ്ങനെ ഇപ്പോഴത്തെ വീട് തേച്ച് കളയരുത് എല്ലാം അത്യാവശ്യം നല്ല രീതിയിൽ കാണുന്നതെല്ലാം നല്ല സ്ട്രോങ്ങായിട്ട് നിൽക്കുന്ന പോലെത്തൊരു ഇതാണ് വേണ്ടത് അതെ അതെ പണ്ടത്തെ മോഡലിൽ തന്നെ അപ്പം ഒരു നാലുകെട്ട് ലുക്ക് ഉണ്ടാവണം അതുപോലെ നല്ല രീതിയ്ക്ക് കാണാൻ നല്ല ഭംഗി ഉണ്ടാവണം ആ ആ എനിക്കിപ്പോൾ വെട്ടുകല്ല് മാത്രമേ എനിക്ക് നിർബന്ധം ആയിട്ടുള്ളു ബാക്കി ഒക്കെ നിങ്ങൾ സാധാരണ ചെയ്യുന്നപോലെ തന്നെ ചെയ്താൽ മതി ബാക്കി എല്ലാം നിങ്ങളുടെ ഇഷ്ടംപോലെ തന്നെ യുസ് ചെയ്യാം ഈ തേപ്പ് മാത്രം ഒന്ന് മുഴുവനാക്കി ചെയ്യാതിരുന്നാൽ മതി ബാക്കി എല്ലാം നിങ്ങളെ ഇഷ്ടംപോലെ തന്നെ ചെയ്തോളു ആ അ പറഞ്ഞോളൂ പറഞ്ഞോളൂ നമ്മൾ ആ ഇപ്പോൾ ഈ മാസം അവസാനം തൊട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ പണി തുടങ്ങാം പക്ഷെ നിങ്ങളുടെ റേറ്റ് ഒക്കെ എങ്ങനെയാണ് വരണത് ആ മതി മതി അങ്ങനെ ആണെങ്കിൽ ഈ നാളെയും മറ്റന്നാളുമായിട്ട് എപ്പോഴെങ്കിലും വന്ന് സ്ഥലം കണ്ടോളു ബാക്കി ഉള്ള കാര്യങ്ങളൊക്കെ അവിടെ വന്ന് നോക്കിയിട്ട് നിങ്ങൾ തീരുമാനിച്ചാൽ മതി ആ ഇല്ല ഞാൻ നാളെയും മറ്റന്നാളും ഫുൾ ഫ്രീ ആണ് അപ്പോൾ നിങ്ങൾക്കെപ്പോൾ വേണമെങ്കിലും വരാം അതിൻ്റെ തൊട്ടടുത്ത് തന്നെയുള്ള വീട്ടിലാണ് ഞങ്ങളിപ്പോൾ താമസിക്കുന്നത് അപ്പം നമുക്ക് അവിടെ മുമ്പ് ഉണ്ടായിരുന്ന വീട് പൊളിച്ചിട്ട് ഇപ്പോൾ അവിടെ പുതിയൊരെണ്ണം പണിയാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പൊ ഞാനവിടെ തന്നെ ഉണ്ടാവും നിങ്ങൾ അതിന് തൊട്ടടുത്തുള്ള വീട്ടിൽ വന്ന് അന്വേഷിച്ചാൽ മതി നാളെയും മറ്റന്നാളും എപ്പോഴാണെന്ന് വച്ചാൽ നിങ്ങൾ വന്നോളൂ കുഴപ്പമില്ല

ആ ഓക്കേ ഓക്കേ എന്നെ ഒന്ന് വിളിച്ചാൽ മതി അപ്പോൾ അതിനനുസരിച്ച് എങ്ങനെയാണെന്ന് വച്ചാൽ ചെയ്യാം നിങ്ങൾ സ്ഥലമൊന്ന് നോക്കിയിട്ട് ആ ആ അത് മതി അവിടെ ഒക്കെ നോക്കിയിട്ട് എങ്ങനെയാണ് വരണത് എത്ര ദിവസമെടുക്കും എത്ര പണിക്കാർ എടുക്കും എന്നുള്ളതൊക്കെ അവിടെ എത്തിയിട്ട് നോക്കിയിട്ട് പറഞ്ഞാൽ മതി പിന്നെ ഇത് ഇപ്പോൾ ഈ മാസം ഫ്രീ ആയിരിക്കുമല്ലോ അല്ലേ വേറെ പണി ഒന്നും ഇല്ലല്ലോ ആ ഓക്കേ ഓക്കേ അപ്പോൾ അങ്ങനെയാണെങ്കിൽ നാളെ വന്നിട്ട് ബാക്കി സംസാരിക്കാം ആ ശരി ഓക്കേ